ആ ഹലോ ഇത് ക്യാമ്പിൻ്റെ ഓഫീസ് അല്ലേ ആ ഞാനിത് കാട്ടിക്കോളം വളാഞ്ചേരി എന്ന് വിളിക്കുന്നതായിരുന്നു ആ അതെ അതെ ആ എനിക്കൊരു ടാക്സി വേണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ട് വിളിക്കുന്നത് ആയിരുന്നു ആ ഇല്ല മാനന്തവാടിയിൽ നിന്ന് വരാൻ ടൈം എടുക്കില്ലേ ഇപ്പോൾ കാട്ടിക്കുളത്തിൻ്റെ നിയർ അവിടെ എവിടേലും ഏതേലും ടാക്സി ഉണ്ടോ ആ ആ ഓട്ടത്തിൽ ആണ് അല്ലേ ഒന്ന് അന്വേഷിക്കാവോ എനിക്കിപ്പോൾ അവിടെന്ന് വരുന്ന ടൈം അത്രയും ഉണ്ടാവില്ല എനിക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണേ ആ ഹ ഹ ഓക്കെ ഓക്കെ ആ എന്തായാലും ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറയണേ എനിക്ക് ഇപ്പോൾ പോയിട്ട് അത്യാവശ്യം ഉള്ള എനിക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ ആ നമുക്ക് ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപാ ആ ഒരു ബഡ്ജറ്റിൽ പോകാൻ പറ്റുന്ന ഏതേലും ക്യാമ്പ് അതേല്ലേ ചെറിയ വണ്ടി ഒന്നുമില്ല ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നിങ്ങൾ നോക്കിയിട്ട് ഉള്ള വണ്ടി ഏതേലും അയച്ചാൽ മതി ആയിക്കോട്ടെ ഓക്കെ വളാഞ്ചേരി എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ആയിക്കോട്ടെ